ഞങ്ങളെ നാട്ടിലൊരുപാട് സാഹചര്യങ്ങൾ ഇല്ലാത്തത് മൂലം മാറിപ്പോയേക്കുന്ന ഒരുപാട് വിനോദങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് അതിലൊന്നാണ് ഫുട്ബോള് കാൽപ്പന്തുകളി അത് ഞങ്ങളുടെ നാട്ടുകാർക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കലയാണ് ഒരുപാട് കുട്ടികള് മറ്റു സ്ഥലങ്ങളിൽപ്പോയിട്ട് അതിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നവരുണ്ട് അപ്പോള് നല്ലദൂരെ പോയി യാത്രചെയ്ത് പോയി കളിക്കുന്നവരുണ്ട് അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കില് ഞങ്ങളുടെ നാട്ടിലൊരു സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഒക്കെ ഞങ്ങള് വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് അതു പോലെതന്നെ ഒരു സിനിമാ തിയേറ്റര് അത് ഞങ്ങളുടെ നാട്ടിലില്ലാത്തൊരു വിനോദമാണ് അത് ഞങ്ങള് വളരെയധികം ആഗ്രഹിക്കുന്ന ഒന്നാണ് കാരണം ഞങ്ങൾ പത്ത് നാല്പത് കിലോമീറ്ററിനു മുകളില് യാത്രചെയ്തു വേണം പോയി ഒരു സിനിമ കാണണമെങ്കില് അങ്ങന അത്രയും ക്ലേശകരമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട് അതുപോലെതന്നെ മറ്റു കലകളായ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാനൊരു ഗ്രൗണ്ട് അതുപോലെതന്നെ കബഡി ഇതെല്ലാം ഞങ്ങളെ നാട്ടീന്ന് അന്യോന്യം നഷ്ടപ്പെട്ടുപോയേക്കുവാണ് മാത്രമല്ല ഒരുപാട് ആൾക്കാരിതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങടേക്ക് ഇത് ലഭിക്കുന്നില്ല അങ്ങനത്തെ കുറേ വിനോദസഞ്ചാരങ്ങള് വിനോദങ്ങള് യാത്ര ചെയ്യാനായിട്ടൊരുപാട് ഓഫ് റോഡ് ട്രക്കിങ്ങ് അങ്ങനത്തെക്കുറേ ആൾക്കാരിഷ്ടപ്പെടുന്ന ഒരുപാട് കലകള് ഞങ്ങളുടെ നാട്ടിൽനിന്നിപ്പോള് മൺമറഞ്ഞു പോയേക്കുവാണ് അതെല്ലാം തിരിച്ച് എത്തണമെന്ന് ഞങ്ങള് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്